എനിക്ക് കാണാന് ആഗ്രഹമുള്ളത് അയോധ്യ അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രമാണ് കാണാന് പിന്നെ അവിടെ കുറേ അമ്പലങ്ങളും കണ്ട് ഹനുമാന് ലക്ഷ്മണന് സത്രുജ്ഞന് അങ്ങനെ കുറേ ആള്ക്കാരുണ്ട് അവരെയൊക്കെ കണ്ട് പോരണം എന്ന് ഉണ്ട് ഒരാഴ്ചയോളം പിടിക്കും അവിടെ തോന്നുന്നുണ്ട് എന്തോ അറിയില്ല അതിന്നാച്ച പൈസ ഒന്നും ഇല്ലാട്ടോ പിന്നെ പോണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് പോവുക എന്നുള്ളത് അതറിയുകയും ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാനുള്ളത് ഗുജറാത്ത് ഗുജറാത്തിൽ പോയി ശ്രീകൃഷ്ണന് വളര്ന്ന നാടാണ് അവിടെ അവിടെ വൃന്ദാവനം ഒക്കെയൊന്നു കണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് യശോദ വാസുദേവ് പിന്നെ കംസന് അങ്ങനെ കുറേ അമ്പലങ്ങളുണ്ട് അവിടെ അതൊക്കെ കണ്ട് അവിടെ കാണാനുള്ള കൊതിയുണ്ട് അതിനൊന്നും തന്നെ പൈസയൊന്നുമില്ല പോകണം എന്ന് ഉണ്ട് ആഗ്രഹവും ഉണ്ട് പിന്നെ കാണാനുള്ളത് കന്യാകുമാരി കന്യാകുമാരിയിൽ പോയിട്ട് അവിടെ ഉദയാസ്തമയം കാണണം പിന്നെ അതേപോലെ തന്നെ വിവേകാനന്ദ പാറ പിന്നെ അതേപോലെ ബീച്ച് പാര്ക്ക് അങ്ങനെ കുറേ അമ്പലങ്ങളും ഉണ്ട് അവിടെ ശിവ വലിയ ഒരു ശിവക്ഷേത്രം ഉണ്ട് അവിടെ അതും കാണണമെന്നുണ്ട് കുറേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നിട്ട് പാലക്കാട് ഒരു വലിയ ഒരു ശിവൻ ഉണ്ട് അറിഞ്ഞു അതും കാണാന് ആഗ്രഹമുണ്ട് പക്ഷെ അത് പോകണം എന്നുണ്ട് പക്ഷേ കൊണ്ടു പോകാൻ ആളില്ല പൈസയും ഇല്ല കൊണ്ടു പോവാന് ആളുണ്ടെങ്കിലും തന്നെ അതിന് ഒന്നാമത് പൈസയില്ലാത്തത് കൊണ്ടാണ് പോവാത്തത് അവിടെ ഒക്കെ കണ്ട് പോരാനും എല്ലാതും ആഗ്രഹമുണ്ട് നല്ല ആഗ്രഹമുണ്ട് അവിടെ ഒക്കെ കണ്ട് പോരാൻ